മൊബൈലിനു ധാരാളം നെഗറ്റീവ് ഇതും ഉണ്ട് കേട്ടോ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് ഉണ്ട് മൊബൈലിൽ മൊബൈല് നമ്മൾ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പം മൊബൈല് എല്ലാ കുട്ടികളുടെ കൈയിലും മക്കളുടെ കൈയിലൊക്കെ ഇപ്പോൾ മൊബൈലിണ്ട് അപ്പം മൊബൈല് അധികം മക്കൾക്ക് കൊടുക്കുന്നതൊന്നും ശരിയല്ല നല്ല കാര്യങ്ങളല്ല പിന്നേന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയായ ഇങ്ങനെ ടീനേജ് കഴിഞ്ഞു വരുന്ന മക്കളുടെ കൈയിലൊക്കെ മൊബൈൽ ഉണ്ടാവുന്ന ടൈമിൽ അവർ പലരീതിയിലേക്കും വയിതെറ്റി പോവാനും എല്ലാമുള്ള സാധ്യത കൂടുതലാണ് മൊബൈലിൽ തല പലതരത്തിലുള്ള ഹാക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു ഭയങ്കര ഡേൻജറായിട്ടുള്ള കാര്യമാണ് ആ അധികം മൊബൈൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ മൊബൈല് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഭയങ്കര പാടാണ്